മലയാളഭാഷ സംസാരിക്കാൻ നമുക്കേറ്റവും ഇഷ്ടമാണ് ഇഷ്ടമാണെന്ന് പറയാൻ മെയ്ൻ പ്രധാനമായും നമ്മളേറ്റവും നല്ല രീതിയിൽ സംസാരിക്കുന്നത് നമ്മുടെ മാതൃഭാഷ തന്നെയായ മലയാളമാണ് മാതൃഭാഷയോടതിൻറ്റേതായ ബഹുമാനവും അത് സംസാരിക്കാൻ നമുക്ക് നല്ല രീതിയിക്കാനറിയാമെന്ന് നമ്മളഭിമാനം കൊള്ളുന്നുണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിക്കുന്ന ഇഷ്ടം ഇഷ്ടമുള്ള വാക്കുകളെന്നൊന്നും പറയാൻ പറ്റില്ല മലയാളത്തിൽ നമ്മളെന്ത് പറഞ്ഞാലും എല്ലാവർക്കും ഇഷ്ടമല്ലേ നമ്മൾ ആവശ്യമില്ലാത്ത വാക്കുകളുപയോഗിക്കുന്നില്ലെന്നല്ലേയുളളൂ പ്രയോഗങ്ങളാണെങ്കിൽത്തന്നെ പ്രയോഗങ്ങൾ കൂടുതലും നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ അങ്ങനെ പ്രയോഗങ്ങളൊന്നും ഉപയോഗിക്കാറില്ല സാധാരണ രീതിയിൽ സംസാരിച്ച് പോവുകയാണ് അല്ലങ്കിലിപ്പം നമ്മൾ ഒരാളെ ഒരു പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു കാര്യങ്ങൾ പറഞ്ഞ് കൊടുക്കുകയോ ചെയ്യണമെങ്കിൽ ചിലപ്പം നമ്മൾ അത് മനസ്സിലാകാൻ വേണ്ടി ചില പ്രയോഗങ്ങങ്ങളൊക്കെ ചെയ്യാറുണ്ട് നമ്മൾ ചിലപ്പോൾ കൂടുതലും നമ്മൾ പഴഞ്ചൊല്ലുകളൊക്കെ പല കാര്യങ്ങളും പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട് പിന്നെയുള്ള പ്രത്യേകിച്ചൊരു വാക്കുകളിഷ്ടമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എല്ലാ വക്കുകളും നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നതാണ് അതിന് ഇന്ന വാക്കിനോട് ഇന്ന ഇഷ്ടം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ പ്രയോഗങ്ങൾ കൂടുതലും നമ്മൾ കൂടുതലും ഉപമയും എന്തെങ്കിലും പഴഞ്ചൊല്ലുകളുമൊക്കെ നമ്മൾ എപ്പോഴും അത് ആരോട് സംസാരിച്ചാലും നമ്മളുപയോഗിക്കും അത് യാദൃശ്ചികമായി തന്നെ നമ്മുടെ സംസാരത്തിൽ കടന്ന് വരുന്ന കാര്യങ്ങളാണ് അത് നമ്മളെ ഒരു ശൈലിയുമാണ് എന്ത് പറഞ്ഞാലും ഞാൻ കഴിഞ്ഞ മുമ്പ് സംസാരിച്ചപ്പോൾത്തന്നെ ആണെങ്കിലും പറഞ്ഞ കാലത്തിനൊത്ത് കോലം തുള്ളണമെന്നൊക്ക പറഞ്ഞ എന്ന് പറഞ്ഞാൽ അതൊക്കെ സാന്ദർഭികമായിട്ട് നമ്മൾ വരുന്ന കാര്യങ്ങൾ നമ്മളെപ്പോഴും പറഞ്ഞ് കൊണ്ടേ ഇരിക്കും അതിനപ്പുറത്തേക്ക് നമ്മൾ എന്ത് എന്തുവന്നാലും മലയാള ഭാഷയിലാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ മാതൃഭാഷയാണ് മാതൃഭാഷ സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരിക്കുന്നതിൽ പോലും അർത്ഥമില്ല ഒരു മാതൃഭാഷയാ നമ്മുടെ മാതൃഭാഷ മലയാളമാണെന്ന് പറഞ്ഞ് മാതൃഭാഷ സംസാരിക്കാനറിയില്ലങ്കിൽ പിന്നെ എന്തിനാ മാതൃഭാഷയാണെന്ന് പറയുന്നത് മാതൃഭാഷയിൽ സംസാരിക്കണതിലാണ് ഏറ്റവും അഭിമാനം കൊള്ളേണ്ടത് അത് ഓരോരുത്തരുടെ നമ്മുടെ മാതൃഭാഷ മലയാളമായതുകൊണ്ട് നമ്മൾ മലയാളം സംസാരിക്കുന്നു അല്ലാതെ ഉള്ള ആൾക്കാരുമുണ്ടാവും അവർക്ക് അവരുടേതായ ഭാഷകളുണ്ടാവും അത് സംസാരിക്കണം നമ്മളിപ്പം വേറൊരു സ്ഥലത്ത് ചെന്ന് നമുക്ക് മലയാളം പറഞ്ഞാൽ ചിലപ്പം മറ്റുള്ളവർക്കറിയില്ലായിരിക്കാം എങ്കിൽക്കൂടി നമുക്ക് നമ്മുടെ ഭാഷയോടൊരു സ്നേഹവുണ്ട് അതെന്നും നിലനിൽക്കുകതന്നെ ചെയ്യും